ഇപ്പം എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വലിയ ഒരു പിന്നെ കൂട്ടുകുടുംബമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൻ്റെ അല്ല അച്ഛൻ്റെ അമ്മയുണ്ട് അച്ഛൻ്റെ അച്ഛനുണ്ട് പിന്നെ എൻറെ അമ്മ എൻ്റെ അച്ഛൻ പിന്നെ എൻറെ അനിയത്തിയുണ്ട് എനിക്കൊരനിയത്തിയുണ്ട് എനിക്കൊരനിയനുണ്ട് ഒരേട്ടനുണ്ട് ചേച്ചിയുണ്ട് ഞങ്ങളഞ്ചു മക്കളാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് മക്കളുണ്ട് പിന്നെ ഏട്ടൻ കല്യാണം കഴിച്ചു ഏട്ടനൊരു കുട്ടിയുണ്ട് ഒരു ഭാര്യയുണ്ട് ഏട്ടൻ ഗവൺമെൻറ് ജോലിയാണ് പിന്നെ എൽ ഡി ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ നോക്കിവീട്ടിലിരിക്കുകയാണ് കുട്ടിക്ക് ഒന്നര വയസ്സായി ഒരു മോളാണ് പിന്നെ അതുപോലെ പിന്നെ ചേച്ചിയുടെ കല്യാണം നോക്കുന്നുണ്ട് ഏകദേശം ഉറപ്പിച്ച പോലെയായി നമ്മൾ പിന്നെ കണ്ണൂരിലേക്ക് ആണ് കെട്ടിക്കുന്നത് അപ്പം എൻഗേജ്മെൻറ് കഴിഞ്ഞു അപ്പം കല്യാണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്ററ് ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേവപ്രിയയും ഒരു പിന്നെ രാധികയും ആണ് അപ്പം അതൊക്കെയാണ് എൻ്റെ അതായത് എനിക്ക് പ്രിയപ്പെട്ടവർ ഇവരൊക്കെയാണ്